പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളയിരത്തി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പത്ത് അഞ്ച് രണ്ടായിരത്തി രണ്ട്